ആ ഇത് വണ്ടിയുടെ ഇൻഷുറൻസ് ഏജൻ്റ് അല്ലേ എൻ്റെ ഒരു പുതിയ വണ്ടിക്ക് ഇൻഷുറ് ചെയ്യാനുണ്ടായിരുന്നു എൻ്റേത് കാറ് സിഫ്റ്റ്

ആ ഈ എല്ലാ മാസവും ഒരു പതിനഞ്ച് ആകുമ്പോൾ എങ്ങനെ ഏത് പ്ലാനെന്ന് പ്ലാനിനെ കുറിച്ചിട്ട് പറയാമോ ആ എനിക്ക് ഫുള്ളായിട്ട് ഇൻഷുർ ചെയ്യുന്നത് തന്നെ മതി മൊത്തം ചെയ്യുന്ന മാതിരി മതി ആ കാറ് മൊത്തം ഇൻഷുർ ചെയ്യുന്ന മാതിരി സാലറി ഒരു ഫോർട്ടീ ഫൈവ് തൗസൻഡ് ഉണ്ട് സിഫ്റ്റ് ആയി ആയി ആ അപ്പോൾ അത് ചെയ്യാം അത് ചെയ്യാം ആ നാളെ ഞാൻ വരാം എത്ര മണിക്ക് എത്തണം ആയി ആയി ആയി ആ അവരെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ആ ഓക്കേ ഓക്കേ ഓക്കേ ആയി ശരി